എൻ്റെ ജില്ലയെന്ന് പറയുന്നത് ആലപ്പുഴയാണ് ഏറ്റോങ്കൂടല് ടൂറിസ്റ്റ് കേന്ദ്രം ഐ മീൻ ടൂറിസ്റ്റ് കാണുവാനായിട്ടൊക്കെ പുറത്തുനിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതല് ആളുകള് കടന്നുവരുന്ന ഒരു ജില്ലയാണ് എൻ്റെ പ്രദേശമായ ആലപ്പുഴ ഹരിതാഭ ഊഷ്മള യായ നല്ല പ്രകൃതി സൗന്ദര്യമുള്ള നാടാണാലപ്പുഴ പുറത്തുനിന്നു വരുന്ന ഒരാളാദ്യമേ തന്നെ ചൂസ്സെയ്യുക എന്നത് പറയുന്നത് ആലപ്പുഴയിലെ കുട്ടനാട് തന്നാണ് കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളും ബോട്ടിങ്ങും ഫിഷിങ്ങും തുടങ്ങിയ കാര്യങ്ങൾളെല്ലാത്തിനും മുൻപന്തിയില് പുറത്തുള്ളവർക്ക് ഭയങ്കരിൻട്രസ്റ്റാണ് കായലുകളിലിലും തോടുകളിലും ആറുകളിലൊക്കെ ചെറിയ ബോട്ടുകളിലും ഹൗസ് ബോട്ട് വലിയ ബോട്ട് ഹൗസ് ബോട്ടുകളിലും തുടങ്ങിയതിലെല്ലാത്തിലും സഞ്ചരിക്കുമ്പോള് കുട്ടനാടിൻ്റെ പ്രാദേശിക ഫുഡ്ഡായ ചോറും കരിമീനും അപ്പവും താറാവും തുടങ്ങിയ സംഭവങ്ങളൊക്കെ കഴിച്ച് രുചി ആസ്വദിക്കുവാനും തുടങ്ങിയ സന്ദർഭങ്ങള്ക്ക് എല്ലാത്തിനുമായിട്ട് കൂടുതലാളുകൾ ഒരു ഭൂരിഭാഗം ശതമാനവും ആളുകള് ആലപ്പുഴ തന്നാണ് ആദ്യമേ ചൂസെയ്യ്ക അത് കഴിഞ്ഞിട്ടാണ് മറ്റൊരു ജില്ല ചൂസെയ്യ്ക കാരണം എല്ലാവരുടെയും സ്വപ്നമാണ് ആലപ്പുഴ സന്ദർശിക്കുക ആലപ്പുഴയുടെ കായലോരങ്ങളിലൂടെ ബോട്ടുകളില് യാത്ര ചെയ്യുക തുടങ്ങിയ ഇതില് നമ്മുടെ കുട്ടനാട്ടിലിപ്പോള് പുറക് പുറത്തുനിന്ന് വരുന്നവര് ഓർത്ത് നമുക്ക് ഏറെ അഭിമാനമുണ്ട് നമ്മുടെ നാടിത്രയും വളരുന്നു കാരണം ഒത്തിരി വളരുന്നുണ്ട് പക്ഷേ ഒത്തിരി വളരുന്നതോടു കൂടി ഒത്തിരി നശിക്കുന്നുമുണ്ട് കാരണം ഹൗസ് ബോട്ടുകളുടെ വർദ്ധനവില് നമ്മളുടെ നാട് നമ്മുടെ കായലിലെ മത്സ്യങ്ങളും തുടങ്ങിയവയെല്ലാം ഈ ഓയിലിന്റെയും പെട്രോളിൻ്റെയും കലർത്തല് കാരണം ജീവൻ നഷ്ടപ്പെട്ട് ചത്തു പോകുന്ന ഇതുണ്ട് ചിലപ്പോള് മത്സ്യബന്ധന സ്രോതസ്സൊന്നും അങ്ങനെ കടന്ന് പോകില്ല ഈ പൊറക് പുറത്തു നിന്നു വരുന്ന ജനങ്ങളുൾപ്പടെ അത് പുറത്തു നിന്നുള്ളവരെ മാത്രം പറയുന്നില്ല ഇവിടുള്ളവരെയും പറയുന്നു വീടുകളിലെ വേയ്സ്റ്റും കാര്യങ്ങളെല്ലാം കായലുകളഇലേക്കും അങ്ങനെല്ലാം തള്ളി നാടിൻ്റെ ഉള്ള സൗന്ദര്യങ്കൂടെ കളയുന്നുണ്ട് പിന്നേ നേരത്തേക്കെ നമ്മുടെ നാട്ടിലങ്ങനെ ഹോസ്പിറ്റൽ ഭയങ്കര കുറവായിരുന്നു ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അല്ലാതെ തന്നെ പ്രൈവറ്റ് കുറച്ചു സംഭവങ്ങള് വന്നു പിന്നേ വിനോദസഞ്ചാരകേന്ദ്രങ്ങളും അങ്ങനെ പോലെ കുറേ ടെർമിനലുകള് കുറെ ബോട്ടിങ് പ്ലേയ്സസ്സ് കയാക്കിങ് കനോയിങ് തുടങ്ങിയ ബോട്ട് സജ്ജീകരണങ്ങളെല്ലാം ഓരോ ടീംസായിട്ടിങ്ങനെ തുടങ്ങാൻ വേണ്ടി പ്പറ്റി സ്പീഡ് ബോട്ട് കായലില്ക്കൂടിയുള്ള കറക്കം തുടങ്ങിയവയെല്ലാം വളരെ ഏറെ നാടിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു കുടിവെള്ളമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കുടിവെള്ളമെന്നത് ജനങ്ങൾക്ക് വെള്ളത്തിൽ താമസിക്കുന്ന നഗരമാണ് ഐ മീൻ വെള്ളത്തിൽ താമസിക്കുന്ന സ്ഥലമാണ് കുട്ടനാട് പക്ഷേ കുടിക്കുവാനായിട്ടുള്ള വെള്ളം കുട്ടനാട്ടിലില്ല കുടിക്കുവാനുള്ള വെള്ളവും പിന്നെ യാത്രാ സൗകര്യങ്ങളും റോഡുകളെല്ലാം ശോചനീയാവസ്ഥയിലാണ് അത് പതുക്കെപ്പതുക്കെ മാറി മാറി വരുന്നതേയുള്ളു മാറിയിട്ടില്ല ഇങ്ങനെ ഓരോ റോഡുകളും ഗവൺമെൻറ്റിൻ്റെ ഇതില് കോൺക്രീറ്റ് റോഡുകളും എല്ലാ വീടുകളിലോട്ടും വാട്ടർ കണക്ഷനും തുടങ്ങിയവയെല്ലാം വരുന്നുണ്ട് പക്ഷേ ഈ വാട്ടർ കണക്ഷൻ വന്നാലും കുഴപ്പമെന്തെന്നാല് വാട്ടർ കണക്ഷൻ വന്നിട്ട് കാര്യമില്ലല്ലോ വെള്ളം വരണം ഈ വെള്ളം വരാത്തൊരു പ്രശ്നവുങ്കൂടെ ഇവിടുണ്ട് പിന്നെ ഗ്രാമീണ ജനനഗറിലേക്ക് കുടിയേറുന്നതിൻ്റെ പിന്നിലെ കാരണമെന്നു പറയുകയാണെങ്കിൽ ഇവിടത്തെ വെള്ളത്തിൻ്റെ മെയിൻ പ്രശ്നം ഇതാണ് കാരണം ഒരു മഴ പെയ്താല് മുങ്ങിപ്പോകുന്നൊരു നഗരമാണ് കുട്ടനാട് പുറത്തുനിന്നുള്ളവർക്ക് കാണുമ്പോൾ അതിമനോഹരമായ നാടാണ് കുട്ടനാട് പക്ഷേ ജീവിക്കുന്നവർ ഏറ്റവും ദുരിതമനുഭവിക്കുന്നൊരു നാടാണ് കുട്ടനാടെന്നു പറയുന്നത് വെള്ളം കയറിയാലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഇല്ലെങ്കിലതിനായിട്ടുള്ള സജീകരണങ്ങൾ ചെയ്യാനോ ആയിട്ടൊന്നും നമുക്ക് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല എല്ലാവരും കിഴക്കൻ നാട്ടിലോട്ടെല്ലാലരും കുടിയേറിക്കൊണ്ടിരിക്കുകയാണെന്നു വരുന്തോറും വരും വർഷങ്ങളിപ്പോളും ഞങ്ങളുടെ ഗ്രാമത്തില്നിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുട്ടനാട്ടിൽ നിന്നും ഒത്തിരി ആളുകള് സ്ഥലം മാറി പോകുന്നുണ്ട്